ഇപ്പോൾ എന്താ പറയാ മൃഗങ്ങളെ നമ്മൾ എന്താ പറയാ വാങ്ങി നമ്മൾ വീട്ടിൽ തൊഴുത്തിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയാ മൃഗങ്ങളെ നമുക്ക് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റും അതുപോലെത്തന്നെ മൃഗങ്ങളെ ഇപ്പോൾ പൂച്ച എന്താ പശു അതുപോലെത്തന്നെ ആട് പിന്നെ പോത്ത് ഇതിനുള്ള ഇതുപോലുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആടിനെ സംബന്ധിച്ച് ആടിൻ്റെ പാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും പശുവൊക്കെയാണെന്നുണ്ടെങ്കിൽ പശുവിൻ്റെ പാൽ കൊടുത്തിട്ടും ഡെയ്ലി ലൈഫിൽ വരുമാനം നമുക്ക് കണ്ടെത്താൻ പറ്റും അതുപോലെത്തന്നെ ആടിൻ്റെ ഇറച്ചി അറുത്ത് കൊടുത്തിട്ട് അങ്ങനേം നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റും നാട്ടിലെ മൃഗങ്ങളെക്കൊണ്ട് നമുക്ക് കുറെ ഉപകാരങ്ങളും ഇതും കാര്യങ്ങളൊക്കെയുണ്ട് അതുപോലെത്തന്നെ എന്താ പറയാ മറ്റേ മൃഗങ്ങളുടെ ആടിന്റെ ആടിൻ്റെ ഇറച്ചി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ഇറച്ചിയൊക്കെയാണ് അതൊക്കെ കൊടുത്ത് നമുക്ക് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഒരുപാടൊക്കെ കിട്ടും അതുപോലെത്തന്നെ എന്താ പറയാ പന്നി പന്നീന്റെ പന്നീനെ അറുത്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല വരുമാനം കിട്ടും നല്ലോണം നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും പിന്നെ പാൽ കൊടുത്ത് പണം സമ്പാദിക്കാം അങ്ങനെ കുറെ ഉപകാരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മൃഗങ്ങളെ കൊണ്ടിട്ട് ഉണ്ടെന്ന് ഉള്ളതാണ്